കാർഷിക മേഖലയിൽ സർക്കാർ ഒത്തിരി പദ്ധതികളും മറ്റുമൊക്കെ ആവിഷ്കരിക്കുന്നുണ്ടെങ്കിലും കൂടിയിട്ട് അത് കർഷകർക്ക് കൃത്യമായ രീതിയിൽ കൃഷി ഭവനിൽ കൂടി മറ്റുമൊക്കെ പഞ്ചായത്തോൾ മുഘേനയൊക്കെ കർഷകരിലേക്ക് എത്തിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങളുണ്ട് പക്ഷെ ഇത് ഒരു ടാർഗറ്റ് വെച്ച് ഒരു സഹായം കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് എന്താണ് എന്ന് അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിവ്യൂ ചെയ്യാറില്ല അപ്പം അതു കൊണ്ടു തന്നെ അതിൽ അസറ്റ് ക്രിയേഷൻ നടക്കുന്നുണ്ടോ ഇല്ലേ ആ പദ്ധതി എത്ര കണ്ട് വിജയകരമാണ് എന്നൊന്നും പരിശോധിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പദ്ധതികൾ അല്ലെങ്കിൽ അതിനുള്ള സംവിധാനങ്ങൾ ഇപ്പോഴും വളരെ വിരളമാണ് ഇപ്പം കർഷകർ ഗവൺമെൻ്റൊരു പദ്ധതി പ്രഖാപിച്ചു ആ പദ്ധതി കർഷകരിലേക്ക് എത്തിക്കുക അതു മാത്രമാണ് ഈ ഏജൻസികളും മറ്റും ഒക്കെ ചെയ്യുന്നത് അതിനപ്പുറത്ത് അത് കൃഷ കർഷകർ കൃത്യമായ രീതിയിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ ഇനി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിജയം എത്രയാണ് ഉപയോഗപ്പെടുത്തിയിട്ടില്ലതിൻ്റെ പരാജയം എന്താണ് അതിൻ്റെ കാരണം എന്താണ് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള കൃത്യമായിട്ടുള്ളൊരു വിലയിരുത്തൽ നടത്തി അടുത്ത പദ്ധതി ആവിഷ്കരിക്കുക അത് നടപ്പിലാക്കുക എന്നുള്ളയിടത്തേക്ക് കാര്യങ്ങൾ എത്തുന്നില്ല എന്നുള്ളതാണ് വസ്തുത അത്തരം കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കുകയാണെങ്കിൽ ആ മേഖലയിൽ നല്ല മാറ്റമുണ്ടാക്കാൻ വേണ്ടി പറ്റും